മലയാള ഭാഷ ശരിക്കും വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയില് തന്നെ ഏറ്റവും ഒരു പഠിക്കാൻ കഷ്ടമുള്ള ഒരു ഭാഷ എന്നു പറയുന്നത് മലയാള ഭാഷയാണ് പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാർക്ക് അവർക്ക് മലയാളം പെട്ടന്ന് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മലയാളികൾക്കെ മലയാളികളെ സംബന്ധിച്ച് മറ്റു ഭാഷകളെ എളുപ്പത്തിൽ തന്നെ സംസാരിക്കാനും പഠിക്കാനും സാധിക്കും അത് തന്നെയാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മലയാളത്തിൻ്റെ ലിപിയാണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ് ഇപ്പോ മലയാളികൾക്ക് മറ്റുള്ള ഭാഷകള് ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും